ഞാൻ അതിപ്പോൾ തുന്നൽ പഠിച്ചിട്ടുണ്ട് എന്നെ എന്റെ അമ്മ തന്നെയാണ് എന്റെ അമ്മയൊരു തുന്നല്ക്കാരിയാണ് അപ്പം എന്റെ അമ്മ തന്നെയാണ് എന്നെ തുന്നൽ പഠിപ്പിച്ചിരുന്നത് ഒരു വലിയ അധികം താല്പ്പര്യമില്ലാത്ത ഒരാളായിരുന്നതിനാല് തന്നെ ഞാൻ അത് ശരിക്കും പഠിച്ച് കംബ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാലും എന്റെ ആവശ്യങ്ങള്ക്ക് വേണ്ടി ഞാൻ തുന്നല്പ്പണികൾ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ആരെയും ഇതുവരെ എനിക്ക് ആര്ക്കും ഇതുവരെ തുന്നൽ പഠിപ്പിച്ച് കൊടുക്കേണ്ടൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് കൂടുതൽ പറയണത് പഠിക്കുമ്പോൾ എന്തേലും മറക്കാനാവാത്ത അനുഭവം നിമിഷമെന്ന് പറയുമ്പോൾ എത്രയാണേലും അത് മറക്കാനാവാത്ത ഏറ്റവും വലിയ നിമിഷമെന്ന് പറയുന്നത് നമ്മളിപ്പം റ്റ് എന്നെ ഏറ്റവും കൂടുതൽ എനിക്കേറ്റവും കൂടുതലൊരു അതിശയമായി തോന്നിയത് ഇപ്പം നമ്മൾ കുഞ്ഞ് കുട്ടികള്ക്കുള്ള കുഞ്ഞുടുപ്പ് തയ്ക്കുന്ന അല്ലെങ്കില് ആ കുഞ്ഞുടുപ്പ് ചെയ്യാന് തുടങ്ങുന്ന ആ ഒരു സമയമാണ് എനിക്കേറ്റവും കൂടുതൽ ഒരു എന്താ പറയുന്നൊരു അതിന്റെ വര്ക്ക് ചെയ്യാന് തുടങ്ങുമ്പോൾ ഉള്ള ഒരു അല്ലെങ്കില് ഇപ്പോൾ ആ ഒരു കുഞ്ഞുടുപ്പ് തുന്നാന് തുടങ്ങുമ്പോൾ അത് വെട്ട്കാ ഫസ്റ്റ് തന്നെ അതിന്റെ മെഷര്മെന്റെടുക്കുക അതിന്റെ മെഷര്മെന്റെട്ത്തത് വെട്ടി അത് നമ്മൾ അതിന്റെതായ രീതിക്ക് അളവിലും എല്ലാം കൃത്യ അളവിലും കാര്യങ്ങളിലും വെട്ടി തുന്നി അത് തുന്നിക്കഴിഞ്ഞ് അത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന നമ്മൾ തുന്നിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ ഉണ്ടാവുന്ന ആദ്യം ശരിക്കും എല്ലാ തുന്നല്ക്കാരും ആദ്യം പഠിപ്പിക്കുന്നത് കുഞ്ഞുടുപ്പ് തുന്നാന് തന്നെയാണ് അത് തുന്നിക്കഴിഞ്ഞത് നമ്മൾ തുന്നിയെടുത്ത് കഴിയുമ്പം നമുക്കുണ്ടാവുന്ന അല്ലെങ്കിലത് കണ്ട് കഴിയുമ്പോൾ നമ്മൾ നമ്മൾ ചെയ്തതാണ് എന്ന് അല്ലെങ്കിൽ അത് കണ്ട് കഴിയുമ്പം നമുക്കുണ്ടാവുന്നൊരു പ്രത്യേകമൊരു അനുഭൂതിയുണ്ട് അല്ലെങ്കിലത് നമ്മൾ ചെയ്തതാണല്ലോ നമുക്ക് മുന്നോട്ടിതൊക്കെ ആവശ്യം ഉള്ളതാണല്ലോ എന്ന് കാണുമ്പം അല്ലെങ്കില് അങ്ങനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പല പല തരത്തില് ഉള്ള വസ്ത്രങ്ങളാണ് നമ്മൾ തുന്നിയെടുക്കുന്നത് ഇന്നിപ്പോൾ നമുക്കെല്ലാവര്ക്കും അറിയാം നമ്മുടെ സമൂഹത്തിൽ പല തരത്തിലുമുള്ള വസ്ത്രങ്ങള് അതായതിപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചെടുത്തോളം പുതിയ വസ്ത്രധാരണം അല്ലെങ്കില് വസ്ത്രമല്ലെങ്കില് ഡ്രസ്സെന്ന് പറയുന്നത് ഒരു അവർ പുതിയ പുതിയ മോഡല്കളല്ലെങ്കില് പുതിയ കുറെ മോഡല്കളതിൽ വരുത്താനും അല്ലെങ്കില് ഓരോരുത്തരും ഓരോ മോഡലാണ് ഓരോ ഡ്രസ്സിലും കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അതിൽ അത് കാണാനുണ്ടാവുന്ന അതിന്റെ ഭംഗിയും എല്ലാം കണക്കിലെടുത്ത് പല പല തരത്തിലുമുള്ള മോഡല് ഡ്രസ്സുകളാണ് ഇന്നത്തെക്കാലത്ത് സ്ത്രീകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു തുന്നല്ക്കാരനെ സംബന്ധിച്ചെടുത്തോളം അത് വലിയൊരു അനുഗ്രഹമാണ് പല തരത്തിലുള്ള വസ്ത്രം അവര്ക്ക് തുന്നിയെടുക്കാന് കഴിയുന്നതും അല്ലെങ്കിൽ അത് തുന്നിക്കൊടുത്ത് മറ്റുള്ളവരെ നമുക്ക് സന്തോഷിപ്പിക്കാന് കഴിയുകാന്നുള്ളതും എല്ലാം വളരെയധികം ഒരു സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ് തുന്നി നമ്മൾ കൊടുക്കുന്ന സാധനം മേടിച്ചു കൊണ്ടുപോയിട്ട് ആള്ക്കാർ വന്ന് നമ്മളോട് അതിനെക്കുറിച്ചുള്ള റിവ്യൂ അല്ലെങ്കില് എങ്ങനുണ്ടായിരുന്നു നമ്മൾ ചെയ്ത വര്ക്ക് അല്ലെങ്കില് എങ്ങനുണ്ടായിരുന്നു അവര്ക്കത് പെഫെക്റ്റായിരുന്നോ അല്ലയോ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്കളും കാര്യങ്ങളും ഉണ്ടോ അല്ലെങ്കില് മിസ്റ്റേക്ക്കളൊന്നും ഇല്ലായിരുന്നു അതത്രയും പേഫെക്റ്റായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു തുന്നല്ക്കാരനുണ്ടാവുന്ന ഒരു മാനസിക സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചെടുത്തോളം നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞ് ഞാൻ കണ്ട് വളര്ന്ന് വന്ന രീതി വെച്ച് നോക്കുമ്പം ഒരു വസ്ത്രം തുന്നി എന്റെ അമ്മ ഒരാളിനെ കൊടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിലിപ്പോൾ പുറത്തൊരാളിനെ തന്നെ നമുക്ക് പറയണ്ട ഇപ്പം എനിക്ക് തന്നെ തുന്നി തന്ന് കഴിയുമ്പം അല്ലെങ്കില് നമ്മളത് ധരിച്ച് കഴിയുമ്പം നമുക്കുണ്ടാകുന്ന ഒരു ഒരു സന്തോഷം അല്ലെങ്കിലത് നമുക്ക് ചേരുന്ന തരത്തിലാകുമ്പോൾ അല്ലെങ്കില് ആ മോഡല് നമുക്ക് ചേരുന്ന തരത്തിലാവുമ്പോൾ അല്ലെങ്കില് വേറെ പല മോഡലുകളും നമുക്ക് ചെയ്ത് തരാന് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതെല്ലാം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒക്കെ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ആല്ലെങ്കില് അത് വളരെയധികം വലിയൊരു സന്തോഷം തന്നെയാണതിന് അതിൽ പ്രത്യേകിച്ചിപ്പോൾ എന്റെ കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും എല്ലാവരുടേം അടുത്താണെങ്കിലും എനിക്ക് എല്ലാവര്ക്കും അറിയുമ്പോൾ അതൊരു വലിയ കാരണം ഇന്ന് നമ്മളൊരു വസ്ത്രം വാങ്ങിക്കുമ്പോൾ തയ്പ്പിക്കുമ്പോഴോ എന്താണേലും അതിന് അതിന്റെതായിട്ടുള്ള വിലയും വിലക്കൂടുതലും എല്ലാം ഉണ്ടാകാറുണ്ട് അന്നേരം എന്റെ പല വസ്ത്രങ്ങളും എന്റെ അമ്മ തന്നെ തയ്ച്ചതല്ലെങ്കില് എന്റെ അനിയത്തി തന്നെ ഡിസൈന് ചെയ്തതോ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് അന്നേരം എന്റെ പല സുഹ്രുത്തുക്കളും കാണുമ്പോൾ അവര്ക്ക് വളരെ അധികം അതിശയം തോന്നുന്ന തരത്തിലല്ലേ അവർ അവർ തന്നെ എന്നോട് പറയും നിന്നെ നീ എന്തൊരു ഭാഗ്യവതിയാണ് നിനക്ക് തയ്ച്ച് തരാനാളുണ്ടല്ലോ ഇപ്പം എന്റെ കുഞ്ഞിന് പോലും വസ്ത്രങ്ങൾ ഡിസൈന് ചെയ്യുന്നതും അതല്ലെങ്കില് അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവൾക്ക് ചെയ്ത് കൊടുക്കുന്നതും എല്ലാം എന്റെ അമ്മയും എന്റെ അനിയത്തിയും തന്നെയാണ് പിന്നെ എന്റെ ഞാന് പഠിച്ചു എന്നത് വെച്ച് നോക്കുമ്പോൾ എന്നെക്കൊണ്ട് വളരെയധികം ചെറിയ രീതിയില് മാത്രം അതായത് എന്റെ കാര്യങ്ങള്ക്ക് മാത്രമേ ചെയ്യാന് കഴിയത്തുള്ളു പിന്നെ വളരെ അധികം പുതിയ പുതിയ മോഡല്കളും കാര്യങ്ങളും അതനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ എന്റെ അനിയത്തിക്കും അമ്മയ്ക്കും തന്നെയാണ് സാധിക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചെടുത്തോളോം ഇതൊരു തുന്നലെന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിലൊഴിച്ച് കൂടാന് കഴിയാത്തൊരു തൊഴിലാണ് പിന്നെയീ തൊഴിലിനെ സംബന്ധിച്ച് നമുക്ക് വേറൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല എല്ലാം കൊണ്ടും എനിക്ക് ഞാൻ ഇതിന് പറയുന്ന ഏറ്റവും വലിയ നിര്ദ്ദേശമെന്ന് പറയുന്നത് എല്ലാവരും എത്ര വലിയ ജോലിയുള്ള ആളാണേലും തുന്നല് പഠിച്ചിരിക്കുന്നതും അല്ലെങ്കില് ആ ജോലി ചെയ്യുന്നതും അത് നല്ലതാണ് എന്ന് തന്നെയാണ് ഞാന് വിചാരിക്കുന്നത്